വേനൽക്കാലമാണെങ്കില് എല്ലാ ദിവസവും രാവിലേയും വൈകുന്നേരവും എല്ലാ ചെടികൾക്കും വെള്ളമൊഴിക്കും മഴക്കാലമാണെങ്കില് ഒരു നേരമെ വെള്ളൊഴിക്കൊള്ളൂ പിന്നെ ആവശ്യമായ എല്ലാ വളവും ജൈവവളം ആണ് കൂടുതല് ഉപയോഗിക്കുക ജൈവ വളം എന്നെച്ചാല് ചാണകം ചാണകം ആണ് പശു ഉള്ളതുകൊണ്ട് ചാണകം ഉണ്ട് ഏറ്റവും കൂടുതല് ഇടുന്നത് പിന്നെ നമ്മള് പച്ചക്കറികളും അടുക്കളയിലെ ബാക്കി വേസ്റ്റ്കളുണ്ടാവും അതൊക്കെ വേസ്റ്റ് ഒരു ബിന്നില് ഡിപ്പെയ്ത് വെച്ചിട്ട് അത് കാലം കുറച്ച് കയ്യുമ്പം വെണ്ണീരും ചാണകവും കൂടി ഒന്നിച്ചാക്കി ഒരു വളമാക്കീട്ട് എല്ലത്തിനും ഉപയോഗിക്കാറുണ്ട് പിന്നെ എന്തെങ്കിലും അണുക്കളോ അല്ലെൽ പാറ്റകളോ പ്രാണികളോ ഉണ്ടെങ്കില് അതിനെ നശിപ്പിക്കാനുള്ള കീഡനാശിനികള് ഉപയോഗിക്കറുണ്ട് ചില പ്ലാന്റുകൾക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന കെമിക്കൽസ് അതായത് ഇപ്പം നമ്മള് ബാക്കി ഫെഡ്ലൈസസുണ്ടാവോലോ വളങ്ങള് അതും ഉപയോഗിക്കാറുണ്ട് ഫെഡ്ലൈസറ് ഇംഗ്ലീഷ് ഫെഡ്ലൈസറ് ഉപയോഗിക്കുന്നതില്ന് കുറച്ചധികം കിട്ടും ജൈവ വളങ്ങളാണ് കൂടുതലും തന്നെ ഞാൻ ഉപയോഗിക്കാറ്